നമ്മുടെ നമ്മുടെ ഈ വയനാട്ടില് ദീപാവലി ഹോളി വലിയ പ്രചരണത്തിൽ എത്തിയിട്ടില്ല ഹോളി പിന്നെ എന്താ പറയുക കോളേജുകളിലൊക്കെയാണ് കൂടുതൽ ഹോളി ആഘോഷിക്കുന്നത് കോളേജ് സ്റ്റുഡൻറ്സ് ഒക്കെയാണ് കൂടുതൽ ഹോളി ആഗ്രഹി പിന്നെ ഇതാക്കുന്നത് ആഘോഷിക്കുന്നത് സംക്രാന്തി അങ്ങനെ തന്നെ ഹിന്ദുക്കളിൽ കാണപ്പെടുന്ന ഒരു ഒരു ഒരു വിശേഷമാണ് ഒരു അവരുടെ ഒരു ഉത്സവമാണ് സംക്രാന്തി പിന്നെ നടവേൽ പള്ളിയിലെ പെരുന്നാള് ജനുവരി ഒന്നാം തീയതിയാണ് അതായത് ജനുവരി ഒന്ന് ഡിസംബർ അവസാനം ജനുവരി ഒന്നിനാണ് നടവേൽപ്പള്ളിയിൽ പെരുന്നാള് ആഘോഷിക്കുന്നത് അതേപോലെത്തന്നെ പള്ളിക്കുന്ന് പള്ളിയിലെ പെരുന്നാള് ഫെബ്രുവരി മാസം പതിനാല് ദിവസം നീണ്ടു നിക്കുന്ന വളരെ എല്ലാവരും നാനാ മതത്തിപ്പെട്ട ആൾക്കാരും അവിടെ പെരുന്നാളിന് വരുന്നുണ്ട് ഒത്തിരി ജനസാന്ദ്രമായിരിക്കും അതൊക്കെ എന്താ പറയുക നമ്മുടെ സാംസ്കാര സാംസ്കാരിക ഉത്സവമാണ് നമ്മുടെ വയനാട്ടിലെ എല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെയാണ് പിന്നെ വള്ളിയൂർക്കാവ് മഹോത്സവം അത് ഡി മാർച്ച് മാസം പതിനേ പത്ത് പതിനെട്ട് ദിവസത്തോളം നീണ്ടുനിൽക്കുന്ന ഒരു ഉത്സവമാണ് അവിടെ നമുക്ക് അന്ന അതായത് അന്നദാനവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വളരെ ഭയങ്കരം എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇത് ചെറിയ കുട്ടികൾ തൊട്ട് ഇന്ന മതത്തിപ്പെട്ട അതായത് അമ്പലത്തിൽ തൊഴുന്നവർക്ക് മാത്രം ഹിന്ദുക്കള് മാത്രം അഹിന്ദുക്കൾ അങ്ങനെ കയറാറില്ല അമ്പലത്തിലേക്ക് പക്ഷേ അതിന് ചുറ്റു പരിസര പ്രദേശത്ത് കുറേ എക്സിബിഷൻ ഹാള് മറ്റേതൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമ്മുടെ എന്താ പറയുക നമ്മുടെ വയനാട്ടിന്റെ ഉത്സവം ആയിട്ട് കണ്ട് അവിടെ പോയി ആഘോഷിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അതേപോലെതന്നെ ശിവരാത്രി ശിവരാത്രി മാർച്ച് മാസം പിന്നെ ഉള്ളൊരു ഇതാണ് അത് നമ്മള് പിന്നെ അന്നത്തെ ദിവസം വ്രതം എടുത്ത് രാത്രി അമ്പലങ്ങളില് പിന്നെ ചെറിയ ചെറിയ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മള് അന്ന് രാത്രി സ്ത്രീകൾ പല ഉറങ്ങാതെ ശിവരാത്രി ആഘോഷിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ എന്താ പറയുക നമ്മുടെ സാംസ്കാരിക ഉത്സവമാണ് ഇന്നും തലമുറയായി കൈമാറ്റം വന്ന അതായത് അപ്പൻ അപ്പൂപ്പന്മാരായി ക്ക അമ്മൂമ്മമാരൊക്കെയായി കൈമാറ്റം വന്ന് ഇപ്പഴത്തെ ജനറേഷനിൽ എത്തി നിൽക്കുന്നു ഇപ്പം ഇപ്പോൾ ഉള്ളവരും യാതൊരു തടസവും കൂടാതെ അത് സന്തോഷത്തോടെ അതൊക്കെ ആഘോഷിക്കുന്നു എന്നതിലാണ് കാര്യം കേട്ടോ വളരെ സന്തോഷമുണ്ട് എല്ലാവരും ഒത്തൊരുമയോടെ അത് എല്ലാത്തിലും പങ്കുചേരുന്നതില്